ഇപ്പം പാട്ടിലേക്ക് എങ്ങനെയാണ് ഈ ഡൈനാമിക്സ് കൊണ്ട് വരുന്നത് എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ പാട്ടുകൾ തന്നെ പല തരം ഉണ്ട് പാട്ട് എന്ന് പറയുന്നത് ഒരു കല തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് അപ്പം പാട്ടിന് പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ തന്നെ ആസ്വദിക്കാൻ വേണ്ടി പലതരത്തിലുള്ള ഓരോരോ ഘടകങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഒന്ന് അതിൻ്റെ വരികളാണ് ഒന്ന് അതിൻ്റെ വാക്കുകളുടെ ഭംഗിയാണ് ഒന്ന് എന്ന് പറയുന്നത് അതിൻ്റെ ഈണമാണ് ഏത് തരത്തിലാണ് പാട്ട് പാടിയിരിക്കുന്നത് എന്നുള്ളത് പിന്നെ സംഗീതം ആരാണ് പാടുന്നത് അയാളുടെ ശബ്ദ മാധുര്യം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഒരു പാട്ടിൻ്റെ ഡൈനാമിക്സിലോട്ട് എത്തുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ചിലപ്പോൾ നമ്മൾ പഴയ പഴയ നമ്മൾ കഴിഞ്ഞ് പോയ ഓർമ്മകളിലേക്ക് പോയേക്കാം ചിലപ്പം നമുക്ക് ഭാവിയിലേക്കുള്ള ചിന്തകളിലേക്ക് പോയേക്കാം അങ്ങനെ പലതരത്തിലുള്ള ഓരോരോ ഒരു ഘടകങ്ങൾ നമുക്ക് ഓരോരോ കാര്യങ്ങളിലേക്ക് നമ്മളെ പാട്ട് കൊണ്ടെത്തിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചിന്തകളും വിചാരങ്ങളും നമ്മുടെ അനുഭവങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ കുറിച്ച് നമുക്ക് നമുക്കൊന്നു കൂടി ഓർക്കാൻ വേണ്ടി പാട്ട് നമ്മളെ സഹായിക്കാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് പലതരത്തിലുള്ള വികാരങ്ങളുണ്ട് അപ്പോൾ ആ പാട്ടിലൂടെ നമുക്ക് ഇപ്പോൾ വിഷമിച്ചിരിക്കുന്നൊരു സന്ദർഭത്തിൽ നമ്മളൊരു പാട്ട് കേൾക്കുകയാണെങ്കിൽ നമുക്ക് ആ പാട്ടിൻ്റെ വരി നന്നായിട്ട് മനസ്സിലാകും എന്ന് കേട്ടിട്ടുണ്ട് അത് എനിക്ക് കേട്ടിട്ടുള്ളത് മാത്രമല്ല പ്രത്യേകിച്ച് അനുഭവിക്കാൻ കഴിഞ്ഞ ഒരു കാര്യം കൂടിയാണ് നമ്മൾ വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഒരു ശോകമായൊരു ഗാനം ഒരു പാട്ട് കേൾക്കുകയാണെങ്കിൽ അതിൻ്റെ വരികൾ നമുക്ക് കുറച്ച് നന്നായിട്ട് മനസ്സിലാകും അതുപോലെ തന്നെ ആ വരിയിലൂടെ ആ കവി എന്താണ് ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് പെട്ടെന്ന് കിട്ടാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടിക്കോ ഫങ്ങ്ഷനോ എല്ലാം പോകുമ്പോൾ അടിച്ച് പൊളി പാട്ട് കേട്ട് ഒരുപാട് ഡാൻസ് കളിക്കാനത് നമ്മൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന പാട്ടാണ് അതുപോലെ തന്നെ നമ്മൾ നല്ല ശാന്തരാക്കാൻ കഴിയുന്ന ശാന്ത സംഗീതം പോൽത്തെ പാട്ടുകളുണ്ട് അത് നമ്മൾ നമ്മൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ കേൾക്കുകയാണെങ്കിൽ നമ്മളെ അത് ശാന്തരാക്കാൻ കഴിയും അതുപോലെ തന്നെ നമ്മൾ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്തായാലും പാട്ടൊക്കെ കേൾക്കുന്നത് നല്ലതായിരിക്കും വിഷമിച്ചിരിക്കുന്ന സമയത്ത് പാട്ട് കേൾക്കുന്നത് നല്ലതായിരിക്കും അത് നമ്മുടെ ചിന്തകളെയും വിചാരങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ വികാരങ്ങളെയൊക്കെ അനുസരിച്ചിരിക്കുന്നു നമ്മൾ കേൾക്കുന്ന പാട്ടിൻ്റെ ഡയനാമിക്സ് എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ആ പാട്ട് മൂലം നിയന്ത്രിക്കപ്പെടുന്നത് നമ്മുടെ ആ ഒരു വികാരങ്ങളാണ് പാട്ട് പാട്ടിന് നിയന്ത്രിക്കാൻ കഴിയുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്